ഹലോ ഹലോ ആ അതേ അതെ ആ അതെ അതെ ആ സാറെ എന്നാ സാറെ ഹലോ ഹലൊ ഹലോ പറഞ്ഞോ സാറെ പറഞ്ഞോ ആ കേൾക്കുന്നുണ്ട് സാറ് പറഞ്ഞോ

ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കേ ആ ഏതാണ് ഡേറ്റേതാണ് പതിനെട്ടാം തിയതി ആ പതിനെട്ടാം തീ ഒന്ന് രണ്ട് പേര് ലീവാണല്ലോ ആ ഇവർക്കെന്തോ അർജൻ്റ് കേസാണെ ഇതേ ഹോസ്പിറ്റൽ കേസായതു കൊണ്ടാണേ ആ എന്തോ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ആ ലീവ് എടുത്തിരിക്കുന്നത് അപ്പം എന്താ അവർക്ക് അതിന് വേറേതെങ്കിലും ഇതിനകത്ത് അറ്റൻഡ് ചെയ്താൽ മതിയോ ആ ആ ആ ആ ആ ആ അപ്പം നേരിട്ട് വന്നു കാണുമ്പം അവരുടേ ആ റീസൺ എന്താണെന്ന് അവർ പറയുമല്ലോ ഇങ്ങനെ ലീവെടുക്കാനുള്ളത് അപ്പം ഒഴിവാക്കാൻ പറ്റുമെന്നാണെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാം ഇല്ലെങ്കിൽ അപ്പം ഇത് അറ്റൻ്റ് ചെയ്യാൻ തന്നെ പറയാം ആ ആ ആ ആ ആ ആ ചെയ്യുന്നു ആ അവരുടെ ഫുഡ്ഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ ഫുഡ്ഡും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ടൈമോ ടൈമെങ്ങനെയാണ് പത്തുമണി തൊട്ട് നാല് മണിവരെയായിരിക്കുമല്ലോ അ ആ യൂണിഫോം മസ്റ്റാണോ യൂണിഫോം ഐ ഡി കാർഡ് ഓക്കെയോക്കെ ആ ആ ആ ആ ആ ആ പതിനെട്ടാം തീ ഡേറ്റല്ലെ ആ ആ ഓക്കെ ഓക്കെ ആ എല്ലാവരും നല്ല നീറ്റായിട്ടൊക്കെ വരണമല്ലേ ആ ആ എല്ലാവരും ഞാൻ വിളിച്ച് കൂട്ടി ഞാൻ അറേഞ്ച് ചെയ്തോളാം ആ മാക്സിമം ഞാൻ ആരെയും ലീവെടുപ്പിക്കാതെ നോക്കാം ഏ ആ ആ ആ ആ ആ ഓക്കെ

പറ്റത്തൊള്ളൂ ആ ഓക്കെ ഓക്കെ ഓക്കെ ഈ കോട്ടയം ബ്രാഞ്ചിൽ മാത്രേ ഒള്ളോ കോട്ടയം ജില്ലയുടെ മാത്രമേ ഉള്ളോ കോട്ടയം ജില്ലയുടേത് അതെ അതെ നമ്മുടെ ആ ഈ കോട്ടയം ജില്ലയുടെ മാത്രമാണ് ഇപ്പം നടത്തുന്നതല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ ആ ആ ഉണ്ട് ഉണ്ട് ആ ആ ആ ആ ആ ഈ ഒരു ഒന്നു രണ്ടു പേരുടെയാണ് ബുദ്ധിമുട്ട് ആ അവർ നേരത്തെ പറഞ്ഞിരിക്കാം ഇപ്പം നമ്മളിപ്പം അറിയുന്നില്ലല്ലോ ഇങ്ങനൊരിതുള്ള ഈ ഡേറ്റിൽ ആണെന്നുള്ളതറിയില്ലല്ലോ അപ്പം അവർ നേരത്തെ നമ്മളോട് അഡ്വാൻസായിട്ട് ലീവ് ചോദിച്ചിരിക്കുന്നതാണ് അതു കൊണ്ടാണ് ഏതായാലും ഞാൻ സാറിനെ വന്നു കാണാനായിട്ട് പറയുക ആ ആ ഓക്കെ ഓക്കെ ഓക്കെ

ആ ആ ആ ആ സാലറിയൊക്കെ കൂട്ടി ഞാൻ പറയാം അവരോട് നിങ്ങൾക്ക് സാലറിയൊക്കെ കൂട്ടി തരണമെന്നുണ്ടെങ്കിൽ ഈ അറ്റൻ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളതെന്നു പറയുക

ആ ഓക്കെ നാഗമ്പടം സ്റ്റേഡിയത്തിലാണ് അ അ അ അ ഓക്കെ ഓക്കെ ആ ശരിയെന്നാൽ ആ ഓക്കെ അ ഹാ ഹാ മാക്സിമം യൂസ് ചെയ്യാമെന്നുള്ളതാണ് അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ എല്ലാവരോടും ഞാൻ പറയാം കറക്റ്റ് സമയത്തവിടെ എത്തിക്കാനുമുള്ള സംവിധാനങ്ങളെല്ലാം ഞാൻ ഒരുക്കാം ആ ആ അ അ ആ അ ആ ആ ഓക്കെ ഓക്കെ ആ ആ നാലുമണിയോടു കൂടി കഴിയുമായിരിക്കുമല്ലോ അല്ലെ ആ അതെ അ ആ ആ ആ ശരിയെന്നാൽ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ